ചിത്രരചനയെന്നു പറയുന്നത് ഒരു കഴിവാണ് ആ കഴിവിനെ നമുക്ക് നിറയെ പ്രാക്ടീസ് മൂലം വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അതിന്റെ വശങ്ങൾ മനസിലാക്കി അതിൽ എന്തൊക്കെ ഉപയോഗിക്കാം അതിന്റെ കഴിവുകൾ വളർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്ന് നമ്മൾ നന്നായി കഠിനമായി പരിശ്രമിച്ച് അതിന്റെ കഴിവിനെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പതുക്കെ പതുക്കെ സാധിക്കും ഓരോന്നായി പഠിക്കണം അത് ചിത്രകലയിൽ ഏറ്റവും കഷ്ടമായ എന്നു കഷ്ടമായി നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് എന്നു പറയുന്നത് പോട്റേറ്റുകളാണ് ഒരാളെ നോക്കി അയാൾ എങ്ങനെയാണ് അയാളുടെ പ്രത്യേകത എന്താണ് എന്നു മനസ്സിലാക്കി അയാളുടെ അതേ രൂപം പേപ്പറിലേക്ക് പകർത്തി എടുക്കാൻ നമ്മളെകൊണ്ട് സാധിക്കണം അത് അതിന് കുറേ പരിശ്രമം ആവശ്യമാണ് അത് ആ കഴിവ് നമുക്ക് വളർത്തികൊണ്ടുവരാൻ സാധിക്കണം അതുപോലെ ഒരാളുടെ കണ്ണുകൾ എങ്ങനെയാണ് വ്യത്യസ്ത തരത്തിലുള്ള കണ്ണുകളും ചെവികളും മൂക്കുകളും അതേപോലെ തന്നെ ചുണ്ടുകളും എല്ലാം നമുക്ക് അതേപോലെ വരച്ചെടുക്കാനായിട്ട് സാധിക്കണം അതിന് നമ്മൾ നന്നായി പരിശ്രമിച്ചിട്ട് അതിന് അതാവശ്യമായ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരണം അതേപോലെ തന്നെ ചിത്രരചനകളിൽ വേറെ ഒരു മുഖ്യമായ ഒരു പോസ്റ്റർ എന്നു പറയുന്നത് ഒരാളുടെ നിൽക്കുന്ന ശൈലി ഇരിക്കുന്ന ശൈലി അതോ അല്ലെങ്കിൽ ഓടുന്നത് ചാടുന്നത് അങ്ങനെ പറഞ്ഞ കുറെ പോസ്റ്റേഴ്സ് നമുക്ക് മനസിലാക്കി വരച്ചെടുക്കാൻ പറ്റണം പിന്നെ പെർസ്പെക്റ്റീവ്സ് നമ്മുടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ അതേപോലെ തന്നെ നമുക്ക് ചിത്രങ്ങളിലൂടെ പകർത്തി പേപ്പറിലേക്ക് പകർത്തി വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം